ആ പൂ കടയാ

പൂക്കളുടെ റേറ്റ് പിന്നെ പല വിലയാ പൂക്കളിന് ഇത് എന്നാ റോസപ്പൂവിന് പത്ത് രൂപ ഒരെണ്ണം ഒരെണ്ണത്തിന് ആ അതുപോലെത്തന്നെ അല്ല ഒരെണ്ണം അല്ല കൂടുതലായിട്ടില്ലേ പിന്നെ എണ്ണത്തിന് വിലയാ നമ്മള് കൂടുതലായിട്ട് ചെയ്ത് തരുമ്പോഴത്തേക്കതിൻ്റെ അനുസരിച്ചുള്ള ഒരൽപ്പം സ്വൽപ്പം കുറയും നമ്മളുടെ ജമന്തിപ്പൂവ് ജമന്തിപ്പൂവേ പിന്നെ ഇപ്പോൾ ഒരു താമര അരളി ഏഹ് പിന്നെ റേറ്റ് വരുമ്പഴത്തേക്ക് ആ റേറ്റ് ഓരോ പൂവിനും പല വിലയാ അതിപ്പം നിങ്ങൾ എടുക്കുന്ന പൂവ് ഏതാണെന്ന് അറിയാതെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യം ഉള്ള പൂവേ പൂവിന് വിലയാ റോസപ്പൂവിനൊക്കെ വലിയ വിലയാ അതുപോലെത്തന്നെ മറ്റേ പൂവിനും വലിയ വിലയാ ആ ആ ആ ആ ജമന്തി ആ ആ അത് നിങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങളത് ഇപ്പോൾ മുല്ലപ്പൂവൊക്കെ നമ്മൾ മുഴം കണക്കിനാ മുഴം മുഴം കണക്കിനാ കൊടുക്കുന്നത് ആ ഒരു മുഴത്തിന് ഒരു ആ പിന്നെ അതുപോലെത്തന്നെ മറ്റേയോ മുല്ലപ്പൂവ് അത് മാലയായിട്ടാ മാലയായിട്ടാ അല്ലാതെ പിന്നെ ലൂസ് ആയിട്ടും കൊടുക്കും നമ്മൾ ഈ പിന്നെ ശവപ്പെട്ടിക്കകത്തൊക്കെ വാരി ഇടത്തില്ലേ നമ്മൾ

ബൊക്കെ വലിയ വിലയാ ബൊക്കെ വെക്കുമ്പഴത്തേക്കേ ബൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ബൊക്കെ വെക്കുമ്പഴത്തേക്ക് അതിൻ്റെ അഞ്ഞൂറ് രൂപ ഉണ്ട് എഴുന്നൂറ് രൂപയുടെ വരെ ഉണ്ട് ആയിരം രൂപയുടെ ബൊക്കെ ഉണ്ട് പൂവിനനുസരിച്ചാ സാധാരണ നമ്മുടെ ആ അതൊന്ന് അത് മറ്റ് സാധനങ്ങളെല്ലാം കൂടി ചേരുമ്പഴത്തേക്ക് അപ്പോൾ പള്ളി വെക്കാനുള്ള റോസാപ്പൂ എല്ലാം കൂടെ ഒരു ഒരു എണ്ണൂറ് രൂപയ്ക്ക് തരാം ഒരു ബൊക്കെ ആ ചെയ്തുതരണം ചെയ്തുതരാം അതിൻ്റെ ബില്ല് ആ റോസപ്പൂ തന്നെ എന്ന് പറയാം റോസപ്പൂ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ വെക്കുന്ന കളർ നിങ്ങൾ നിങ്ങൾ വെക്കുന്ന കളറിനിടയ്ക്ക് വെള്ളയുടെ കൂട്ടത്തിൽ വല്ല നിറത്തിന് വല്ലതും വെക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യം കൂടെ പറയണം വേറെ പൂവ് വെക്കാൻ ആ മതി ആ ആ മതി അഡ്വാൻസ് തരുന്നതാ നല്ലത് അല്ലെങ്കിൽ കാരണം എന്നാ വെച്ചാൽ ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് ആ സാധനം നിങ്ങൾ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ ആ ആയിക്കോട്ടെ ആയിക്കോട്ട് ആയിക്കോട്ടെ